പാലക്കാട് ജില്ലയിൽ ഒരുപാട് സംസ്കാരരീതികൾ അല്ലെങ്കിൽ ആചാരങ്ങൾ ഉണ്ട് ഇപ്പോൾ പാലക്കാട് ജില്ലയിലെ കൽപ്പാത്തി സ്ഥലം നോക്കുകയാണെന്ന് വെച്ചാൽ അവിടെ ഓരോ ആചാരങ്ങൾ ഉണ്ട് അവിടെ താമസിക്കണത് മുഴുവൻ ബ്രാഹ്മിൻസ് ആണ് അപ്പോൾ അവര് രാവിലത്തെ അതായത് രാവിലെ എണീച്ച് അവര് വീട്ടിൻ്റെ മുൻപത്ത് കോലവും മറ്റു കാര്യങ്ങളൊക്കെ ഇടുന്നു അതുപോലെത്തന്നെ ഇപ്പോൾ നമ്മുടെ നമ്മുടെ ഓണത്തിന് നമ്മള് അതുപോലെ നമ്മള് മലയാളികൾ മറ്റ് ആഘോഷങ്ങളൊക്കെ വരവേറ്റിക്കൊണ്ട് നമ്മൾ മാവേലി വീട്ടില് നമ്മുടെ മാവേലിയെ വെക്കുന്നു അതുപോലെ വിഷുവിന് ആയിക്കോട്ടെ നമ്മള് അതിരാവിലെ എണീച്ച് നമ്മള് കണി കണ്ട് പലതരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നു പിന്നെ നമ്മുടെ ഈ ഉത്സവങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് വീട്ടിലും മറ്റും വേഷം കെട്ടി ഓരോ ആൾക്കാര് വീടുകളിലോട്ട് വരുന്നു കരിവേഷം മറ്റും കെട്ടിയിട്ട് അങ്ങനെ ഓരോ പലതരം സാംസ്കാരികരീതികൾ ആചാരങ്ങൾ പാലക്കാട് ഉണ്ട് ഇവയെല്ലാം സമൂഹത്തിൻ്റെ രീതികള് അല്ലെങ്കിൽ സാംസ്കാരിക ആചാര ഇതെല്ലാം തീർച്ചയായിട്ടും സമൂഹത്തിൻ്റെ ഐക്യം കൂടുതലായിട്ടും അല്ലെങ്കിൽ സമൂഹ പാലക്കാട് നമ്മുടെ എന്ന ജില്ലയുടെ കൂടുതൽ ഐക്യം കൂടുതൽ കൂട്ടുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതുപോലെ മലയാളകവികളിൽ ഏറ്റവും പ്രശസ്തനായ കുഞ്ചൻ നമ്പ്യാർ അദ്ദേഹം മലയാളസാഹിത്യത്തിൻ്റെ പിതാവാണ് അപ്പോൾ അദ്ദേഹം പാലക്കാട് ജില്ലയിലെ ചിറ്റൂരാണ് അദ്ദേഹത്തിൻ്റെ അവസാനനാളുകൾ ചിലവഴിച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ യേശുദാസ് ആയിക്കോട്ടെ അദ്ദേഹത്തിന് യേശുദാസിൻ്റെ ഗുരുവായൂർ ചെമ്പൈ വൈദ്യനാഥ ഭാഗവത അദ്ദേഹം പാലക്കാട് ജില്ലയിലെ ആളാണ്